ട്രക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണ് എനിക്ക് നടക്കാൻ വളരെ ഇഷ്ടമാണ് ഞാൻ ഇവിടെനിന്ന് മലയാറ്റൂർ വരെയൊക്കെ നടന്നു പോയിട്ടുണ്ട് നടക്കുമ്പോൾ എനിക്ക് ഒത്തിരി അനുഭവവേദ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു തീരുമോയെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം ഞാനൊരു പത്ത് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു പത്തു വർഷം മുമ്പാണ് ഞാൻ മലയാറ്റൂരിലേക്ക് നടന്നു പോയത് അപ്പം നടന്നപ്പം നടന്നപ്പോൾ എൻ്റെ കൂടെ ഒരു കൊച്ചനുണ്ടായിരുന്നു ആ കൊച്ചൻ മരിച്ചു പോയി എനിക്ക് അതെന്നെ വളരെ ഹൃദയ സ്പർശിയായതാണ് അനുജിത്തെന്നു പറഞ്ഞൊരു പയ്യനാണ് മരിച്ചുപോയി എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് അന്നുതന്നെ എനിക്ക് നടന്നു പോയപ്പോൾ വഴിതെറ്റിപ്പോയി ഞാൻ കാട്ടിൽപ്പെട്ടു പോവുകയും ഒരു മനുഷ്യനെന്നെ എനിക്ക് എനിക്ക് താമസസ്ഥലം തരികയും എന്നെ സപ്പോർട്ട് ചെയ്യുകയുമൊക്കെ ചെയ്തു പിറ്റെദിവസം രാത്രി പിറ്റെദിവസം രാവിലെ ബസ്സിന് കയറി ഞാൻ അടുത്ത സ്ഥലത്തിറങ്ങുകയുമൊ ക്കെ ചെയ്തു അങ്ങനെയുള്ള ഒരനുഭവമുണ്ട് പിന്നെ ട്രക്കിങ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് വഴി നിശ്ചയമില്ലാതെ കാടും മലകളൊക്കെ നടന്ന് പോയിക്കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അനുഭവ സമ്പത്തുള്ളവരുടെ കൂട്ടത്തിൽ നമുക്ക് പരിചയമില്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ളവരുടെ കൂട്ടത്തിൽ മാത്രമേ നമ്മൾ ട്രക്കിങ്ങിന് പോകാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ വന്യ മൃഗങ്ങളുടെ വന്യ മൃഗങ്ങളുടെ മുന്നിൽ ചാടുകയും അല്ലെങ്കിൽ വഴിയറിത്തില്ലാതെ ദിശ തെറ്റിപ്പോയി നമ്മൾ കാടുകയറിപ്പോവുകയൊക്കെ ചെയ്തുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എന്നാ കാട്ടിലൊക്കെ ആണെങ്കിലും മൊബൈലിന് റേഞ്ച് ഒന്നും കാണില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കാണണം പിന്നെ നമ്മൾ ട്രക്കിങ്ങിന് മെയിനായിട്ട് അത്യാവശ്യം വേണ്ട വെള്ളവും ഭക്ഷണ സാനങ്ങളൊക്കെ കരുതുന്നതും നല്ലതാണ് ഇല്ലെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് കാട്ടിലൊന്നും തിന്നാൻ കിട്ടത്തില്ല അതുപോലെ വെള്ളം വെള്ളം മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ അത്യാവശ്യം വേണ്ട ഒരു എന്താ പറയുക അത്യാവശ്യം വേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സൊക്കെ കരുതുന്നത് നല്ലതാണ് നമുക്കെന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ പറ്റുമോ എന്തെങ്കിലുമൊക്കെ കാലും തട്ടുകയോ മുട്ടുകയോ മുറിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെക്കാനൊക്കെ ആയിട്ട് ഒക്കെ പോവുകയാണ് ട്രക്കിങ്ങ് ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് ഇപ്പോഴും നല്ലതുതന്നെ ഒറ്റയ്ക്കുള്ള ട്രക്കിങ്ങ് എപ്പോഴും അപകടം പിടിച്ച ഒരു കാര്യമാണ് അത് നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം

ട്രക്കിങ് എപ്പോഴും നമ്മളെ ശരീരത്തിനൊക്കെ എപ്പോഴും നല്ലതാണ് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നാ ഒത്തിരി ട്രക്കിങ് നടത്താതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും ഭാവിജീവിതത്തിൽ ഭാവി ജീവിതത്തിനെന്നല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് അത് അഭിമുഖീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതു നമ്മൾ മുന്നിൽ കണ്ടുവേണം ട്രക്കിങ്ങൊക്കെ നമ്മൾ പോകാനായിട്ട് പിന്നെ നമുക്ക് ഒരു ട്രക്കിങ്ങെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഹരമാണ് അപ്പോൾ നമ്മൾ അതിനെ മാത്രം മുന്നിൽ കണ്ട് നമ്മുടെ ഭാവി ആരോഗ്യ പ്രശ്നങ്ങളെന്തെങ്കിലും ആരോഗ്യം ആരോഗ്യം നമ്മൾ മെയിനായിട്ട് നോക്കണം ആരോഗ്യമുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഈ ട്രക്കിങും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റൂുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് മെയിനായിട്ട് എനിക്ക് ട്രക്കിങ്ങിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുളളൂ